എന്റെ വലിയ നേട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പ്ലസ്ടു ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന അതായത് ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞ ഒരു ടൈമിൽ ഒരു പൾസർ ബൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പത്ത് മോഡൽ അത് എങ്ങനെയാണ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ രീതിയിൽ ഓട്ടോറിക്ഷയിൽ അതായത് താഴെയുള്ള ഒരു എന്റെ ഒരു ചേച്ചിന്റെ ഒരു ഓട്ടോ ഓടിച്ച് അങ്ങനെയാണ് ഞാൻ അതിനകത്ത് നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഒരു ബൈക്ക് വാങ്ങിയത് ആദ്യമായിട്ട് അത് എന്റെ അടുത്തുള്ള ഒരു വീട്ടിലെ ചേട്ടായിനെയും കൂട്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് പോയിട്ടാണ് ആ ബൈക്ക് വാങ്ങിയത് അപ്പോൾ അതെനിക്കൊരു വലിയൊരു എന്താ പറയാ ഒരു സംഭവമായിട്ടാണ് തോന്നിയത് കാരണം എന്താ വെച്ച്കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇതുവരെ ഒരു ബൈക്ക് സ്വന്തമായിട്ട് ആരുടെയും എന്താ പറയാ നമ്മൾ വേറെ ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് കിട്ടുവുമില്ല അപ്പോൾ നമ്മൾ എനിക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും കാലുപിടിച്ച് പോകണ്ടല്ലോ അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് ഞാൻ പോയി എടുത്തത് അപ്പോൾ എനിക്ക് ഭയങ്കര സംഭവം ആയിട്ടാണ് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷവും കാര്യവും സന്തോഷവുമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഒരു വണ്ടിയെടുത്തു അത് എന്റെ സ്വന്തം പേരിൽ വണ്ടി എടുത്തു അപ്പം അത് എനിക്കൊരു അഭിമാനം ആയിട്ടാണ് തോന്നിയത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറെ വണ്ടിയെടുത്തെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ ആദ്യമായിട്ട് എടുത്തത് എന്റെ പൾസർ എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്